ആരായിരുന്നു

ആണോ ഞാൻ തന്ന മരുന്നു തന്നെയാണോ കഴിച്ചത് ആണോ കഴിക്കാത്തത്തിൻ്റെ ആയിരിക്കും വേറെ എന്തേലും ഭക്ഷണം എന്തെങ്കിലും കഴിച്ചായിരുന്നോ മാറി അപ്പോള് അതിൻ്റെയാവാൻ സാധ്യതയുണ്ട് പിന്നെ മരുന്നും കുറച്ചു ദിവസമായിട്ട് കഴിച്ചിട്ടില്ലല്ലോ അപ്പോഴതിൻ്റെയാകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഭയങ്കര കൂടുതലാണോ അതോ അതെ വേറെ കുറേ ആ ആണോ വേറെ എന്തെങ്കിലും മരുന്നെന്തെങ്കിലും കഴിച്ചായിരുന്നോ ചിലപ്പോള് ആ ചിലപ്പോള് അതിൻ്റെ എഫെക്ട് വരാനും സാധ്യതയുണ്ടോന്ന് പറയാന് പറ്റില്ല ചിലപ്പോള് രണ്ടും കൂടെ എല്ലാം കൂടെ ഒരുമിച്ചാണോ കഴിക്കുന്നേ അതോ സെപ്റേറ്റ് സെപ്പറേറ്റാണോ അതെ അല്ലേ ആ അപ്പോള് ഇനി അങ്ങനെ കഴിക്കുമ്പോള് എന്താണെന്നുവച്ചാല് മറ്റേ തല വേദനേൻ്റെയോ വേറെന്തിന്റെയെങ്കിലും ഗുളിക കഴിക്കുന്നുണ്ടെങ്കില് ആ മരുന്നു കഴിച്ചിട്ട് ഒരു മണിക്കൂർ വിട്ടിതു കഴിച്ചോളൂ പിന്നെ ഇനി എന്നിട്ടും വീണ്ടും കൂടെ ഒന്നു നോക്കിനോക്കൂ കുറവില്ലെങ്കില് ഒന്നും കൂടെ വാ കെട്ടോ

ആ അപ്പോള് ആ ചെയ്തുതരും അല്ലേ ഇപ്പോള് മരുന്ന് വേറെ എന്തെങ്കിലും ഞാന് എഴുതിയിട്ട് ചീട്ടായിട്ട് ഫോട്ടോ അയച്ചുതരണോ ജെസ്റ്റ് വാങ്ങാൻ ആ എന്നിട്ട് എന്തേലും ഒരു മണിക്കൂര് വിട്ടു കഴിക്കുക കെട്ടോ ഇനി ചിലപ്പോള് നമുക്ക് ഇല്ലെങ്കില് ഇന്നു തന്നെ അടുത്തൊന്ന് ടെസ്റ്റെയ്തു നോക്കിക്കോളു എന്നാല് നോക്കിയിട്ടു വിളിക്കൂ കെട്ടോ

ആ എന്നാല് ഇങ്ങോട്ടു തന്നെ പോരേ ഓക്കെ